സാങ്കേതിക വിദ്യ ബാങ്കിങ് സേവനം ഇപ്പോള് നന്നായിട്ട് എളുപ്പമാക്കുന്നുണ്ട് അതായത് സാധാരണക്കാരനും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തില് ബാങ്കിങ് സേവനം അത്രയും എളുപ്പമാക്കുന്നുണ്ട് അതായത് ഇപ്പോള് എക്സാമ്പിള് പറയുവാണെങ്കിൽ ഗൂഗിൾ പേ എ റ്റി എം ഇങ്ങനക്കെയുള്ളത് സാങ്കേതിക വിദ്യകളുപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കുറച്ച് അനുബന്ധ കാര്യങ്ങളാണ് ബാങ്കിങ്ങുമായിട്ട് വരുന്നത് അപ്പോള് ഇതുകൊണ്ട് തന്നെ നമ്മള്ക്ക് പെട്ടെന്ന് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങള് നിറവേറ്റാനും വളരെയധികം ബാങ്കില് പോകാതെ തന്നെ നമ്മള്ക്കിപ്പോള് പൈസ ട്രാൻസ്ഫര് ചെയ്യാനുമൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നോളജിയുടെ ഇടപെൽ ഇടപെടൽ ബാങ്കിങ് മേഖലയിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്